കല്യാണ ചടങ്ങുകളിലൊക്കെ വലിയ അളവിലാണ് വെള്ളം പാഴായി പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് എന്താണ് ഡെക്കറേഷൻ വർക്കിനാണെങ്കിലും അല്ലാതെ നമ്മളീ ഭക്ഷണ പാചകം ചെയ്യുന്നവിടെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുന്നവിടെ ഒക്കെ ഒരുപാട് വെള്ളം പാഴാവുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കാനെന്താ ചെയ്യേണ്ടെന്ന് വെച്ചാല് ഇപ്പോൾ നമുക്ക് ഡെക്കറേഷൻ അല്ലെങ്കിൽ അങ്ങനുള്ള ആർട്ട് വർക്ക് സ്റ്റേജ് ഡെക്കറേഷൻ വെള്ളം കൊണ്ടുള്ള പരിപാടികളൊക്കെ നമുക്ക് മാക്സിമം അങ്ങോട്ട് ഒഴിവാക്കാവുന്നതാണ് നല്ലത് കാരണം വെള്ളം കിട്ടാതെ ഒരുപാട് ആൾക്കാര് പുറത്ത് നിക്കുന്നുണ്ട് ഈ ചൂടും കൊടും വേനലിലൊക്കെ അപ്പോൾ നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ നമ്മള് അങ്ങനെ ചെയ്യാതിരിക്കണം നമുക്ക് അത് ആ വെള്ളം കൃഷി പിന്നെ നമുക്ക് കളറൊക്കെ ചേർത്ത് നല്ല മധുരമൊക്കെ കൊടുത്തിട്ട് ആ വെരുന്നവർക്ക് വെള്ളം കൊടുത്ത് തന്നെ അവരുടെ ദാഹം മാറും പിന്നേന്ന് പറയുന്നത് നമ്മളീ ഭക്ഷണം പാചകം ചെയ്യുന്ന അവിടെയും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുന്ന അവിടെയൊക്കെ വെള്ളം അനാവശ്യമായിട്ട് പൈപ്പൊക്കെ തുറന്നിട്ടിട്ട് പോകാറുണ്ട് ശ്രദ്ധിക്കാറില്ല പലപ്പൊഴും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ ആളെ നിർത്തുക പൈപ്പ് നേരടച്ചിട്ടുണ്ടോ അല്ലേ വെള്ളം എപ്പഴും പോകുന്നുണ്ടോ എന്ന് ഒക്കെ ശ്രദ്ധിക്കണം എവിടെങ്കിലും ലീക്കുണ്ടോന്ന് ശ്രദ്ധിക്കണം പിന്നെ അനാവശ്യമായിട്ട് ഈ വെറുതെ വെറുതെ വെള്ളം എടുക്കുക കഴുകുക പാത്രം കഴുകുക പച്ചക്കറികൾ കഴുകുക അതിനൊക്കെ നമുക്ക് മാക്സിമം കുറച്ച് വെള്ളം ഉപയോഗിക്കാം നല്ല രീതിയിൽ വൃത്തിയായി കഴുകണം എന്ന് തന്നെ എന്നിരുന്നാലും മാക്സിമം വെയിസ്റ്റാവാത്ത രീതിയിൽ നമുക്കെന്തു ചെയ്യാം ആ വെള്ളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ട് പോകുന്നതാരിക്കില്ലേ നല്ലത്